ആ ഇപ്പൊൾ ഒരു എന്താ പറയുക പൂന്തോട്ടൊക്കെ നമ്മള് വീട്ടില് സ്ഥാപിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക പല സ്ഥലത്ത് പോയിട്ട് അതിൻ്റെതായ എന്താ പറയുക പല ചെടികളുടെയും വിത്തൊക്കെ ശേഖരിച്ചോണ്ട് വന്നിട്ടായിരിക്കും നമ്മള് വീട്ടില് ഇത് എന്താ പറയുക സ്ഥാപിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മളിത് കറക്ട് എന്താ പറയുക നട്ട് വെള്ളമൊഴിച്ച് വളർത്തി വെലുതായി വന്നതിന് ശേഷം അതിലൊരു പൂവൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു വലിയ സന്തോഷമാണ് അപ്പോൾ ആ ഈ പൂവൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്താ പറയുക പുറമെ നിന്നൊരു ആള് വന്നിട്ട് ഇതിപ്പോൾ എന്താ പറയുക ഇതിലുണ്ടാവുന്ന പൂവൊക്കെ പറിക്കുവോ അങ്ങനൊക്കെ ചെയ്താൽ കുട്ടികളൊക്കെ വരുമ്പോൾ തന്നെ എന്താ പറയുക ഒരു പൂവൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവരോടിപ്പോയി പറിക്കുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയുക ഫുൾ ടൈം ഇങ്ങനെ നമ്മളത് ശ്രദ്ധിച്ച് പരിപാലിച്ച് കൊണ്ട് നടക്കുന്നൊരു പൂവാ അങ്ങനെയാകുമ്പം നമുക്ക് ചെറിയ ഒരു വിഷമമൊക്കെ ഉണ്ടാവും പിന്നെ അതേസമയത്തെന്നു പറയുമ്പോൾ നമ്മളിത് പരിപാലിക്കുന്നതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതല് എന്താ പറയുക നമുക്ക് ചിലവെന്ന് പറയാൻ ആയിട്ട് അങ്ങനെ പൂന്തോട്ടം ഒക്കെയാകുമ്പോൾ വലിയ കാര്യമായിട്ട് സ്ഥലനഷ്ടം എന്താ പറയുക അതുമാത്രമാണ് നമുക്ക് ചിലവ് ആയിട്ട് വരുന്നോളു പിന്നെ ആ അതിനുവേണ്ടിയിട്ട് വളമൊക്കെയാണെങ്കി തന്നെ നമുക്ക് പശുനെയൊക്കെ വളർത്തുന്ന ഇതിൽ ചാണകവും അങ്ങനൊക്കെ വളമൊക്കെ ഇട്ടുകൊടുത്തിട്ടാണ് നമ്മളിത് കൂടുതലായിട്ടും പരിഹരിക്കുക അപ്പോൾ അങ്ങനൊക്കെയുണ്ടാകുമ്പോൾ ഈ ചാണകം പോലെയുള്ളതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കി പുഴു ഈച്ച അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൂന്തോട്ടം നശിപ്പിക്കും അങ്ങനെ ചെറിയ ബുദ്ധിമുട്ട് ഒക്കെയാണ് നമുക്ക് സാധാരണ കണ്ടുവരുന്നുള്ളു ഇത്തരത്തിലാണ് ഒരു പൂന്തോട്ടത്തിന് എന്താ പറയുക പൂന്തോട്ടം ഒക്കെ നോക്കുമ്പോൾ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകള്